ഹലോ ആ ഞാൻ കുറച്ചു മുൻപേ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് റദ്ദാക്കേണ്ടി വന്നു ആ എൻറെ വീടിനടുത്ത് ഒരു മരണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത്യാവശ്യമായി ഞാനൊന്ന് തിരുവനന്തപുരം വരെ പോവുകയായിരുന്നു അപ്പം വീടിനടുത്തുള്ള ഒരു മരണം ആയതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു അപ്പം ക്യാബ് ഞാൻ റദ്ദാക്കി ഞാൻ നിങ്ങൾക്കൊരു അഡ്വാൻസ് പേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് അപ്പോൾ അതെനിക്കൊന്ന് റീഫണ്ട് ചെയ്യാൻ പറ്റുമെന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം എന്നുവെച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പോകുന്നില്ലല്ലോ അല്ല ഞാൻ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് അത് കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ അയ്യായിരമല്ല പ പതിനായിരം രൂപവേണമെങ്കിലും ഞാൻ അഡ്വാൻസും കാര്യങ്ങളും ഒക്കെ തന്നേനെ പക്ഷേ ഞാൻ പോകാത്തെ പോകാതെ ഒരു പൈസ നിങ്ങൾക്കിപ്പോൾ ആവശ്യം ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അത് തിരിച്ച് തരാൻ വേണ്ടി പറഞ്ഞത് ഇപ്പോൾ അതിനെന്തൊക്കെയാണ് പ്രൊസീജർ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഇപ്പോൾ അഡ്വാൻസ് തന്ന ഞാനിപ്പോൾ എന്തായാലും ഗൂഗിൾ പേ ആണ് ചെയ്ത് തന്നത് എനിക്ക് ഇപ്പോൾ അത് തിരിച്ച് എനിക്ക് റിട്ടേൺ ആയിട്ട് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ആ ഓക്കേ ഒക്കെ ഒന്ന് ചെയ്തു തരുമോ ഇപ്പോൾത്തന്നെ ചെയ്യുമോ ആ ഓക്കേ ഓക്കേ ഒന്ന് ഇട്ട് തന്നെ